എൻ്റെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് ഞാൻ ഫുട്ബോൾ കളിക്കുന്നതാണ് ഈ ഫുട്ബോൾ കളിയിലൂടെ ഞാൻ കുറേ മെഡലുകളും ട്രോഫികളും മേടിച്ചു കൂട്ടിയിട്ടുണ്ട് എൻ്റെ ഏറ്റവും വലിയ അഭിമാനം തോന്നിയ നേട്ടം എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ജൂനിയറിൻ്റെ എതിർ ടീം ആയിട്ട് എനിക്ക് കളിക്കാൻ പറ്റിയതും ആ കളി ജയിക്കുകയും ചെയ്തതാണ് എൻ്റെ ഏറ്റവും വലിയ അഭിമാനം ആയ നേട്ടം